മുൻവർഷത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമൂഹിക നിലയിലും എല്ലാം സ്ത്രീകൾ ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾ ഇന്നും ഒരുപാട് വെല്ലുവിളികളും വിവേചനങ്ങളും നേരിടുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായത് കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം വിദ്യാർഥിനികളും പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാണ് അവരിൽ തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പ്ലസ് ടു വരെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ പ്രഫഷണൽ കോഴ്സുകളിലും ഉള്ള സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് ഈ മേഖലകളിൽ സ്ത്രീകൾ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് തൊഴിൽ രംഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകൾക്കും തൊഴിൽ ചെയ്യാനാവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം തന്നെ കൈവശം ഉണ്ടെങ്കിൽ പോലും അവരാരും തന്നെ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നില്ല മിക്ക സ്ത്രീകളും സാധാരണ വീട്ടമ്മമാരായി തുടരുകയാണ് ഇത് മലപ്പുറം ജില്ലയിൽ കണ്ട് വരുന്ന ഒരു പ്രവണതയാണ് മാത്രമല്ല ഭൂമിയുടെ കൈവശാവകാശത്തിലും കൗമാരപ്രായത്തിലെ വിവാഹത്തിലും ഗർഭധാരണത്തിലും എല്ലാം ഇനിയും മലപ്പുറം ജില്ല ഒട്ടേറെ മുന്നേറാനുണ്ട് വിദ്യാഭ്യസത്തിലുള്ള അസമത്വം വിവേചനവും എല്ലാം കുറഞ്ഞ് വരുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് നേരെയുള്ള അനീതികളും അക്രമങ്ങളും ഇന്നും നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്നും ഇനിയും അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശബ്ദമുയർത്തേണ്ടത് വളരെ അധികം അനിവാര്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ